ഈ കാലത്തൊക്കെ മലയാളം ശുദ്ധ മലയാളം പറയുന്ന ആള്ക്കാര് വളരെ കുറഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാര് മൊത്തം ഇംഗ്ലീഷ് ജർമ്മൻ ബാക്കിയുള്ള ഭാഷകളാണ് കൂടുതൽ ഉപയോഗിക്കാറ് അവിടെ മലയാള സംസ്കാര പാരമ്പര്യങ്ങളെ അവർ മറക്കുന്നു കുറേ മനുഷ്യർ ആഘോഷിക്കുവാനും ഭാഷയെ ആഘോഷിക്കുവാൻ ആദരിക്കാൻ വേണ്ടി ഭാഷാ ദിനങ്ങളൊക്കെ വയ്ക്കുന്നു ഭാഷ മലയാള ഭാഷ പറയാൻ വേണ്ടി ക്ലബ്ബുകളൊക്കെ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കാരണം മലയാള ഭാഷ മരിച്ചു കൊണ്ടിരിക്കുന്നു മലയാള ഭാഷ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണിതൊക്കെ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മുടെ ഭാഷ മരിക്കുന്നില്ല ഈ ഭാഷയിലൂടെ ഈ ഭാഷ നമ്മുടെ അമ്മയാണ് നമ്മുടെ മണ്ണാണ് നമ്മളിതിനെ മറന്നു കളിക്കരുത് ഒരിക്കലും